എന്റെ വീട്ടിൽ ഗ്രൈന്ററ് മിക്സി കുക്കറ് പിന്നെ ഗ്യാസ് ഗ്യാസടുപ്പ് ബ്രിഡ്ജ് പിന്നെ ഇങ്ങനെയുള്ള എലക്ട്രിക്ക് സാധനങ്ങളൊക്കെ ഞങ്ങളുടെ വീടുകളിലുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ അടുപ്പ് വിറക് ഇതൊക്കെ വച്ചുപയോഗിക്കുമ്പോൾ നമുക്കൊരുപാട് ബുദ്ധിമുട്ടായിരുന്നു ഇന്ന് നമ്മൾ ആ കാലങ്ങളൊക്കെ മാറി ഇപ്പോൾ ഫ്രിഡ്ജും ഇലക്ട്രിക്ക് സാധനങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഭവനങ്ങളിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പം ഒരുപാട് സഹായമാണ് എല്ലാവർക്കും എളുപ്പത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പണ്ടത്ത കാലത്ത് അങ്ങനെയൊന്നുമില്ല അടുപ്പും വിറകും വച്ച് അമ്മിയിലരച്ച് ഇത് ആട്ടുന്നത് ആട്ടുകല്ലിലിട്ടാട്ടി ഒക്കെയാണ് നമ്മൾ ദോശയും അപ്പവുമൊക്കെ ചെയ്യുന്നത് അങ്ങനെ പല സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടുള്ള കാലമാണ് പണ്ടത്തെക്കാലം ഇന്ന് എല്ലാം റെഡിമെയ്ഡായിട്ട് ഇലക്ട്രിക്കൽ വന്നതിന് ശേഷം റെഡിമെയ്ഡായിട്ടെല്ലാം ഉണ്ടാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇന്ന് നമുക്ക് ഉണ്ട് അതുകൊണ്ട് എല്ലാവർക്ക് ഇപ്പം സുഖമായ രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് ഓരോരുത്തരും ജോലിക്ക് പോകാനും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനും എല്ലാവർക്കും സൗകര്യവും സാഹചര്യങ്ങളും കിട്ടുന്നുണ്ട് സമയവും കിട്ടുന്നുണ്ട് അങ്ങനെ പല പല പ്രശ്നങ്ങൾ വരുമ്പോൾ ഓരോ കാര്യങ്ങളിലും മുൻ കൂടുതൽ കൂടുതൽ സമയം എടുത്ത് ചെയ്യുവാനുള്ള ഓരോ ചെയ്യുവാൻ എല്ലാവർക്കും പറ്റുന്നുണ്ട് ജ്യൂസ് മിക്സിയുണ്ട് ജ്യൂസടിച്ച് കുടിക്കാൻ പറ്റും അങ്ങനെ ഇലക്ട്രിക്കലായിട്ടുള്ള പല പല ഉപകരണങ്ങളും കൊണ്ട് നമ്മുടെ ഭവനങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അന്ന് ഇന്നത്തെ കാലമല്ല പണ്ടത്തക്കാലം പണ്ട് ഒരുപാട് ബുദ്ധിമുട്ടി വിഷമിച്ച് കഷ്ടപ്പെട്ടൊക്കെയാണ് ഓരോരുത്തരും ജീവിച്ചത് അടുപ്പുകൊണ്ട് അടുപ്പിൽ വിറകുകൊണ്ട് മണ്ണെണ്ണ ഒഴിച്ച് അടുപ്പ് കത്തിച്ച് പൊടിയടുപ്പ് നിറച്ച് പൊടിയടുപ്പിൽ ചോറ് വച്ച് അങ്ങനെയൊക്കെയാണ് പല ആൾക്കാർ ജീവിച്ചുകൊണ്ടിരുന്നത് ഇന്നതൊക്കെ മാറി അപ്പം അന്നത്തെക്കാലത്ത് ആരോഗ്യങ്ങളുണ്ട് ആൾക്കാർക്ക് ചെയ്യാനും ആ ആഹാരങ്ങൾക്ക് നല്ല രുചി ഉണ്ടായിരുന്നു ഇന്നെല്ലാം ഇലക്ട്രിക്കൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ രോഗങ്ങളും പ്രശ്നങ്ങളും എല്ലാമായിട്ടാണ് ജനങ്ങൾ ഇന്ന് മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള കാലഘട്ടമായിട്ടാണ് ഇന്നത്തെക്കാലം ജീവിക്കുന്നത് ആൾക്കാർ രോഗങ്ങളെന്ന് പറഞ്ഞാൽ ആഹാരത്തിന്റെ ഇതുകൊണ്ട് പല രോഗങ്ങളും ഉണ്ടാകുന്നുണ്ട് നമ്മളുടെ ശാരീരികമായിട്ട് എല്ലാവരും ഇപ്പം സുഖമായ ഒരു ജീവിതമാണ് ഇലക്ട്രോണിക്ക് സാധനങ്ങൾകൊണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്നത് അങ്ങനെയാണ് ബുദ്ധിമുട്ടുകളില്ലാതെ ജീവിക്കാനും അവരവരുടെ കാര്യങ്ങൾ ചെയ്യാനും എല്ലാവർക്കും ഉന്മേഷമായിട്ട് നടക്കുന്നുണ്ട് ആ ഓരോ സമയങ്ങളിലും ആവശ്യങ്ങളിലേറെ ഭക്ഷണങ്ങളുണ്ടാക്കാനും അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാനും ഫ്രിഡ്ജിലിരുന്നെടുത്ത് ചൂടാക്കി കഴിക്കാനും ഇങ്ങനെയൊക്കെ ആകുമ്പോൾ രോഗങ്ങളും പ്രശ്നങ്ങളൊക്കെത്തന്നെ എല്ലാവർക്കും ഇതാകുന്നത് പിന്നെ ഇലക്ട്രിക്കോൽ സാധനങ്ങളുടെ എല്ലാ ഉപകരണങ്ങളും ഞങ്ങളോരോ ദിവസവും ആ ഉപകരിച്ച് കൊണ്ട് ആവശ്യത്തിലേറെ കാര്യങ്ങൾ ചെയ്യുവാനും അങ്ങനെ ഞങ്ങളെ സഹായിച്ച് കൊണ്ടിരിക്കുന്ന എല്ലാ ഉപകരണങ്ങളേയും ഇതാ സമർപ്പിച്ച് ഉപകരണങ്ങളെ ഉപകരണങ്ങൾ ലഭ്യമല്ലാത്ത സമയങ്ങളിലും ദിവസങ്ങളിൽ നിന്നും ഓരോ പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഞങ്ങൾക്കുണ്ടാക്കി വ്യത്യാസമായ രീതിയിൽ മിക്സറും ഗ്രൈൻ്ററും കൊണ്ട് ഞങ്ങളെ സഹായിക്കുന്നു സിലിണ്ടർ ഗ്യാസുപകരണങ്ങളും എല്ലാ ഓവൻ ഇതൊക്കെ എല്ലാ വീടുകളിലിപ്പം ഉള്ളതാണ് ആ ആ സാധനങ്ങൾ കൊണ്ടെല്ലാമാണ് ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇനിയും ഓരോ അവസരങ്ങളിൽ ഇങ്ങനത്തെ എല്ലാ സാഹചര്യങ്ങളിലും ഓരോ ഉപകരണങ്ങളാൽ ഞങ്ങൾക്ക് ലഭ്യപ്പെടുന്നതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളിലേറെ പ്രശ്നങ്ങളും വൈഷമ്യങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ട് അങ്ങനെ ഉള്ള എല്ലാ അവസരങ്ങളേയും എല്ലാ സാഹചര്യങ്ങളിൽ ഉപയോഗിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇലക്ട്രോണിക്ക് സാധനങ്ങളാൽ ഓരോ കുടുംബങ്ങളിൽ ഓരോരുത്തർക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ പറ്റുന്ന ഒരവസരമാണ് അതിനാൽ എല്ലാ സാഹചര്യങ്ങളും മുന്നോട്ട് പോകാൻ പറ്റും